ഗ്രാമിണ സമൂഹത്തില് എല്ലാതരത്തിലുള്ള മിക്കവാറും നൃത്ത രൂപങ്ങളുണ്ട് ഇപ്പോൾ തിരുവാതിരക്കളി ഒപ്പന മാർഗംകളി പൊറോട്ട് നാടകം അങ്ങനെ ഒരുപാട് നൃത്തരൂപങ്ങള് ഗ്രാമപ്രദേശങ്ങളില് ജനപ്രിയം ആയിട്ടുണ്ട് അപ്പോൾ ഓരോ കളിക്കും അതിൻ്റെതായ അല്ലെങ്കിൽ ഓരോ നൃത്ത രൂപങ്ങൾക്കും അതിൻ്റെതായ വസ്ത്രങ്ങളും അതിൻ്റെതായ ആഭരണങ്ങളും ഒക്കെ ധരിക്കേണ്ടതുണ്ട് ഇപ്പോൾ തിരുവാതിര കളിക്കായിക്കോട്ടെ അതിൻ്റെതായ സാരിയും മറ്റും ഒക്കെയാണ് ഒപ്പന എന്നു പറയുന്ന മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട അവർ കളിക്കുന്ന മുസ്ലിം ഇപ്പോൾ എന്താ പറയുക മണവാട്ടിയും ചുറ്റും മണവാട്ടിക്ക് ചുറ്റുമിരുന്ന് കളിക്കണ ഒരു കളിയാണ് മാർഗംകളി ക്രിസ്ത്യൻ അവരുടെ ഇടയിൽ കളിക്കുന്ന ഒരു കളിയാണ് അപ്പം അങ്ങനെ ഓരോ കളികൾക്കും ഓരോ നൃത്തരൂപത്തിനും അതിൻ്റെതായ വ്യത്യാസങ്ങൾ ഉണ്ട് അപ്പോൾ ആളുകൾ പല അവസരങ്ങളിലും കളിക്കാറുണ്ട് ഇപ്പോൾ എന്തെങ്കിലും എന്തെങ്കിലും കല്യാണവും മറ്റും കല്യാണം അല്ല എന്തെങ്കിലും പരിപാടികൾ വരുന്ന സമയത്ത് കളിക്കാറുണ്ട് വീടുകളിലും മറ്റും എന്തെങ്കിലും ഉത്സവങ്ങളായിക്കോട്ടെ ആ സമയത്തും മറ്റു വിശേഷപ്പെട്ട ദിവസങ്ങളിലുമൊക്കെ ഈ ഒരു കളികൾ കളിക്കാറുണ്ട്